ഹലോ ഡോക്ടറ അല്ലെ ആ ഞാൻ ശരണ്യ കാസർഗോഡ് നിന്ന് വിളിക്കുന്നു ആ എനിക്ക് ഭയങ്കര തലവേദന കഴുത്തിന് താഴെ കഴുത്ത് തിരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഇങ്ങനെ മണങ്ങുംബെല്ലം താഴെ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര തലൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ഭയങ്കര വേദന ഇങ്ങനെ പിടിച്ചു വലിച്ചു ഇതാക്കിയ പോലെ ആണ് ഇപ്പോൾ ഒരു ഒരു കൊല്ലമായിട്ട് ഇപ്പം ഒരു കൊല്ലം ഏകദേശായിട്ടുള്ളതാണ് കുറേ ടാബ്ലറ്റ് ആ മരുന്ന് കുറേ സ്ഥലത്ത് കാണിച്ചു ആയുർവേദിക്കെല്ലാം കാണിച്ചു മരുന്ന് കഴിക്കുന്നുണ്ട് അത് കഴിക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് കുറയുന്നു ഡോക്ടർമാർ മൈഗ്രേൻ എന്ന് പറയുന്നു ഡോക്ടർ അത് തീരുന്നു ഇത് പോലെ ഇങ്ങനെ തിരിക്കുമ്പോൾ ഫുള്ള് നരമ്പിൻ്റെ ഒരു വലി പോലെ ഫുള്ള് ആ ഫുള്ളായിട്ടുള്ളൊരു പെയിന് അതിപ്പോൾ കുറവില്ല ടാബ്ലറ്റ് എടുക്കും കഴിക്കുമ്പോൾ കുറയുന്നു

ഇല്ല ഇല്ല ജലദോഷം ഒന്നുമില്ല ആ ആ ആ സ്കാൻ ഇല്ല സ്കാൻ ഇത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്തില്ല ഇപ്പോൾ ടാബ്ലറ്റ് തന്നെ യൂസ് ചെയ്യുന്നത് ഉള്ളത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കുറവില്ല അങ്ങനെ ആ ഇല്ല ഇല്ല ഇല്ല അതെ ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുള്ളതിൽ രണ്ടു മൂന്ന് ദിവസം കുറയുന്നു പിന്നെ അതിലാണ് അങ്ങനെ വരുന്നത് പിന്നെ നല്ലോണൊക്കെ വയ്യാതാവുമ്പോൾ പോയിട്ട് ഇൻജെക്ഷൻ എന്താണ് വച്ചാൽ എടുത്തിട്ട് വരുന്നത് ആ ഹലോ ആ ഞാൻ നിങ്ങളെ ക്ലിനിക്കിലേക്ക് ഞാൻ വരാം ഹോസ്പിറ്റലിൽ

ആ ഓക്കെ അപ്പോൾ ഞാൻ ഏത് സമയമാണ് വരണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയം വരാം ഏത് സമയത്ത് ഡോക്ടർ അവിടെയുണ്ടാവും

ഓ ആ ഞാൻ ആ ഞാൻ അവിടെ വിളിച്ചിട്ട് ടോക്കെണെടുത്തിട്ട് വരാം ഓ ഓ ആ ശരിയെന്നാൽ ആ ആയി